കേരളത്തിൽ നമുക്ക് മെഡിക്കൽ കോളേജുകൾ കുറവാണ് ആരോഗ്യത്തിൽ ആയിക്കോട്ടെ ഇപ്പോൾ ആരോഗ്യപ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ജനിച്ച കുട്ടികൾക്ക് വരെ ക്യാൻസർ വരുന്ന രോഗങ്ങൾ ഉണ്ട് അപ്പോൾ തന്നെ എന്താ പറയുക പനി തൊട്ട് അങ്ങനെ എല്ലാ അസുഖങ്ങളുണ്ട് അപ്പം ഇപ്പോൾ ഡോക്ടർമാരുടെ കുറവാണ് അപ്പോൾ ഒന്നാമതായിക്കോട്ടെ മെഡിക്കൽ കോളേജ് കോഴിക്കോടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടേക്കാണ് വരിക അപ്പോൾ തന്നെ എന്താ പറയുക ഡോക്ടർമാരുടെ കുറവായിക്കോട്ടെ നഴ്സുമാരുടെ കുറവായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കുറവുണ്ട് അപ്പോൾ തന്നെ മരുന്നുകളും മെഡിക്കൽ കോളേജിൽ പോലും മരുന്ന് കിട്ടാറില്ല അങ്ങനെയുള്ള മരുന്ന് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് നമ്മൾ എന്താ പറയുക പ്ര പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെ തേടേണ്ട ആവശ്യമുണ്ട് കാരണം ഓരോരോ അസുഖങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ഒരു അസുഖം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ എന്ത് അസുഖമാണ് ഒരുപാട് സ്കാനിങ്ങിലൂടെയൊക്കെ മാത്രം നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ അങ്ങനെയുള്ള സംവിധാനം ഇല്ല അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു മേ ഒരു മെഡിക്കൽ കോളേജും അതുപോലെതന്നെ ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലേ എന്താ പറയുക കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു പരമാവധി കുറക്കാവുന്നതാണ് കാരണം എല്ലായിടത്തും എന്താ പറയുക കുറച്ചു കൂടി വികസനം ആവശ്യമുണ്ട്